നമ്മുടേ ഇപ്പം കേരള ഗവൺമെൻറ്റിൻറ്റെ എജ്യൂക്കേഷൻ സിസ്റ്റം സിസ്റ്റത്തേപ്പറ്റി പറയുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അവരിപ്പം ഒരുപാട് ഡ്രോബാക്സുണ്ട് ഒരുപാട് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ അവരുടെ സെറ്റ് ഹോൾ സെറ്റപ്പ് തന്നെ ഒരു ഭയങ്കര ഇതാണ് എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ബിള്ഡിങ്ങായാലും കുറച്ചും കൂടി ഒന്ന് എല്ലാ ഒന്നേയെന്ന് റെനോവേറ്റ് ചെയ്തൊന്ന് കുറച്ചു കൂടിയൊന്ന് മെച്ചപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും ആ ഒരു ക്യാമ്പസ് ഫീലിങ് എല്ലാം ഒന്ന് നല്ലതായിരിക്കും പിന്നെ ഈവൻ ദോ മലയാളമാണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിലും ലൈക്ക് മലയാളമാണ് വേ ഓഫ് എശ്ശിങ്ങെങ്കിലും ലൈക്ക് മലയാളമാണ് മീഡിയം എന്താ മീഡിയം ലാങ്വേജെങ്കിലും നമ്മൾ ലൈക്ക് കുറച്ചു കൂടി ഇംഗ്ലീഷ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അങ്ങനൊരിത് കൊണ്ടു വരുന്നത് നല്ലതായിരിക്കും കാരണം ഇപ്പം മലയാളം വെച്ചീ നാട്ടുകാർക്കൊരിക്കെ ഇപ്പം ഈ നാട്ടിൽ നമുക്കോപ്പർച്യൂണിറ്റീസെന്നു പറഞ്ഞാൽ ഭയങ്കര കുറവാണ് ആൻഡ് പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്റ്റേറ്റ് സിലബസ്സിലുള്ള ആൾക്കാർക്കെന്നു പറഞ്ഞാൽ ഇംഗ്ലീഷിന് നോളജ് ഭയങ്കര കുറവായിരിക്കും അപ്പം അത് ലൈക്ക് അത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതു കൊണ്ടു വരിക ലൈക്ക് ഇപ്പം എൻറ്റെ സിറ്റ്വേഷൻ പറയുകയാണെങ്കിൽ ഞാനൊരു സീ ബി എസ് സി സ്റ്റുഡൻറ്റാണ് പക്ഷേ എന്തെന്നു പറഞ്ഞാലും എനിക്ക് ഒരു നേരേ നിന്നൊരു സ്പീച്ച് പറയാൻ പറഞ്ഞാൽ പോലും എന്നേക്കൊണ്ട് പറ്റില്ല ഇംഗ്ലീഷിൽ അത് ഇവിടെ മാത്രമല്ല മിക്ക ചില സീ ബി എസ് സീ സ്കൂളുകളും കാണുന്നൊരു പ്രശ്നമാണ് അപ്പം ഇംഗ്ലീഷെന്നുള്ളത് എനിക്ക് ബേസിക്കലി സംഭവം പെട്ടെന്നെന്നേക്കൊണ്ട് പറ്റില്ല കാരണമെന്നു വെച്ചാൽ എനിക്ക് സ്റ്റേജ് ഫിയറുണ്ട് ആൻഡ് ആ ഒരു ലാങ്വേജ് ബാരിയറിൻറ്റെ ആ ഒരിഷ്യൂ ഉണ്ട് അപ്പം ഈ ആ ലാങ്വേജിൻറ്റെ കാര്യം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് അത് വളരെ നല്ലതായിരിക്കും എല്ലാവർക്കും ആൻഡ് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സാം ഇപ്പം കേരള ഗവൺമെൻറ്റിൻറ്റെ കേരള എജ്യൂക്കേഷൻ സിസ്റ്റത്തിൻറ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും ചുമ്മാ ഈവൻ ദോ ഈ സ്റ്റേറ്റ് സിലബസ്സിൽ എല്ലാ പിള്ളേർക്കും അവരുടെ പബ്ലിക് എക്സാം കഴിഞ്ഞ ഉടനെ ഇഷ്ടം പോലെ മാർക്കാണവർക്ക് എ പ്ലസ് ആ ഗ്രേഡൊക്കെ ഭയങ്കര കൂടുതലാണ് ചുമ്മാ പേരെഴുതി വെച്ചാൽ വരെ ഭയങ്കര ഗ്രേയ്ഡാണ് അപ്പം അത് ആ ഒരു സിസ്റ്റമെന്നു പറയുന്നത് കൊള്ളത്തില്ല അത് ലൈക്ക് ഗവൺമെന്റ് ഈവൻ ആ സ്റ്റേറ്റ് സിലബസ്സിലേ കുട്ടികളോടു തന്നെ ചെയ്യുന്നൊരു വലിയൊരു ചതിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മാർക്ക് കൊടുക്കുകയെന്നു വെച്ചു കഴിഞ്ഞാലവർക്ക് അവരുടെ ഡ്രോബാക് അവർക്കെന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയത്തില്ലയെന്നത് അവർക്ക് മനസ്സിലാകില്ല അപ്പം അതെന്നു പറയുന്നത് ഒരു വലിയ ഡ്രോബേക്ക് തന്നെയാണിപ്പോൾ അവർക്ക് മനസ്സിലാകില്ല അവർക്കെന്തോരമറിയില്ല എന്തൊക്കെ അറിയാം സോ അത് ഇപ്പം വലിയൊരു ഡ്രോബാക്കാണ് സോ അതൊന്നിമ്പ്രൂവ്വ് ഇമ്പ്രൂവ്വ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റായിട്ടുള്ള വാല്യുവേഷൻ തന്നെ വേണം അപ്പോഴേ അവർക്ക് എന്തൊക്കെയറിയാം എന്തൊക്കെയറിയില്ല ഇപ്പം ഓക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയുടെ കാര്ഡ് എടുക്കുക സ്റ്റേറ്റ് സിലബസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലേ എക്സാമാണെന്നോർത്തോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതൊക്കെ ഉണ്ടാകും ബേസിക്കലി സയൻസ് അതിനൊരു ബെയ്സുണ്ടാകും ഒന്നുമറിയാത്തൊരു കുട്ടിക്ക് ഫുൾ ഏ പ്ലസ് കിട്ടി ഒന്നുമെഴുതാത്തൊരു കുട്ടിക്ക് ഫുൾ ഏ പ്ലസ് കിട്ടിയാൽ എങ്ങനിരിക്കും അത് സെയിം സിറ്റ്വേഷനാണ് അപ്പം മാർക്ക് പിള്ളേർക്കത് ചിലപ്പം മനസ്സിലാകണമെന്നില്ല അപ്പം അവരാ ഒരിതിൽ ചിലപ്പം ചാടിക്കയറി പ്ലസ് വൺ പ്ലസ് ടൂവിൽ സയൻസ് സ്ട്രീമെടുക്കും സയൻസിലിതു തന്നേ പ്ലസ് വൺ പ്ലസ് ടൂ സ്റ്റേറ്റ് സിലബസ്സാണേ തീർന്ന് ഇത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടും മാർക്ക് കിട്ടി പണി കിട്ടാൻ പോകുന്നത് അവരൊരു നല്ലൊരു കോളേജിൽ പോകുമ്പോഴാണ് അവര് അവർക്കൊന്നുമറിയില്ല അവർക്ക് ബേയ്സ് പോലുമറിയില്ല അത് ശരിക്കും അവർ വല്ലാണ്ട് കഷ്ടപ്പെടും അവർ പഠിക്കാൻ മെല്ലെ ചിലപ്പം ചില കുട്ടികൾക്കത്ര വലിയ സാമ്പത്തിക നിലയില് നിന്ന് വര് വരുന്നവരാണോ അങ്ങനെയൊന്നും നിർബന്ധമില്ല സോ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ചിലർ പഠിയ്ക്കുക അപ്പം അങ്ങനെ വരുമ്പം ഈ ലോണെടുത്തിട്ട് പഠിക്കാൻ പറ്റുന്നില്ല പാസ്സാകാൻ പറ്റുന്നില്ല അതൊരു വലിയ ചതിയാണല്ലോ സർക്കാർ വിദ്യാർത്ഥികളോടും പൊതുജനങ്ങളൊടും മുഴുവനായിട്ടും ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഈ അവർ പറയുമ്പം ജസ്റ്റ് മാർക്കിട്ട് കൊടുക്കുകയാണ് പക്ഷെ എന്താ കാര്യം അവർ ചതിക്കുകയാണ് ബേസിക്കലി അപ്പം ഇത് ശരിക്കും ഒരു ടൂ ഫോൾഡ് എഫക്റ്റാണ് അതിപ്പം ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരു വശം രണ്ടാമത്തെ വശമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം ഞാനീ പറഞ്ഞൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചില പിള്ളേർ ചില പേരൻസ് ചില രക്ഷകർത്താക്കൾ അവരുടെ പിള്ളേരെ സീ ബീ എസ് സി കാശില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും കാശ് വളരെയധികം കഷ്ടപ്പെട്ട് സീ ബീ എസ് സീയിലും ഐ സീ എസ് സിയിലുമൊക്കെ വിട്ട് പഠിപ്പിക്കും അത് അവർക്ക് അവരേക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരുപാട് അപ്പുറത്തായിരിക്കും അങ്ങനെ സർക്കാർ ചതിക്കുകയാണ് പിന്നുള്ളതെന്നു വെച്ചു കഴിഞ്ഞാൽ ശരിക്കും പഠിച്ചെഴുതി ഡിസേർവിങ്ങായ ഒരാൾക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളൊന്നുമറിയാത്തവൻ ചിലപ്പം കൊണ്ടു പോകും സോ അത് ശരിക്കും വിദ്യാർത്ഥികളോടും ഈ സ്റ്റേറ്റ് സിലബസ്സിൽ പഠിക്കുന്ന മുഴുവൻ ചതിയാണത് സോ അത് മാറ്റുകയെന്നുള്ളതാണ് ഒഴിവ് കാര്യം